ഹലോ ആ ഇത് നമ്മുടെ അഞ്ചന ബ്രോക്കറല്ലേ ആ എനിക്ക് ഒരു ഞാൻ വാടകക്കൊരു വീട് വേണമായിരുന്നു അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണേ അപ്പം ആ ഞാൻ എനിക്ക് ഒറ്റ വർഷത്തേക്കു മതി ഇപ്പം പതിനൊന്ന് മാസത്തേക്കല്ലേ എഗ്രിമെൻറ്റ് എഴുതുന്നത് ആ അപ്പം ഞാനിവിടെ ബാങ്കിലാണ് ഞാനവിടുത്തെ മുത്തൂട്ട് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ആ അപ്പം എനിക്ക് എനിക്ക് സിംഗിളായിട്ട് ഒരു മതി സിംഗിളായിട്ടൊറ്റ ഒറ്റ വർഷത്തേക്ക് ആ മതി മതി മതി

എനിക്കിപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ വാടകക്ക് മതി ഒറ്റ വർഷത്തേക്ക് മതി ഒറ്റ വർഷം വേണ്ട എനിക്ക് വേറൊരിതായിക്കഴിഞ്ഞാൽ പിന്നെ അതു പോലെ എനിക്ക് ബാങ്കിൽ ലീവ് ഉള്ള ദിവസം ഞാനെൻ്റെ വീട്ടിലേക്ക് പോകും അപ്പം എനിക്കൊരു മുറിയും അതിനോട് അത്യാവശ്യം ഒരു സൗകര്യം മതി വെള്ളം വേണം പിന്നെ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യണം എനിക്ക് കാറുണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം വേണം ഇപ്പം എനിക്ക് അധികം ദൂരം പറ്റുകയില്ല ഇവിടെത്തന്നെ വേണം

ഇപ്പം വാടക എത്രയാണ് ആ എനിക്ക് ഒറ്റക്ക് വേണം ഒറ്റക്കെന്നു പറയുമ്പോൾ മൂന്ന് വർഷത്തേക്കൊക്കെ അല്ലേ എത്ര വർഷത്തേക്ക് ഒറ്റി അപ്പം

ആ അതെ അതെ അപ്പം ഒറ്റി അപ്പം ഏന ഒറ്റി കാശ് അപ്പം എത്രയാണ് ഒരു വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ ഒറ്റിയല്ലേ അപ്പം എന്നാൽ അത് നോക്കുന്നതായിരിക്കും എനിക്കും ലാഭം

ഞാനിപ്പം ഞാൻ എൻ്റെ വീട് അങ്ങ് എറണാകുളത്താണ് ഞാനപ്പം ഇവിടെ ജോലിക്ക് വന്നിരിക്കുകയാണ് അപ്പം എനിക്കപ്പോൾ ഒറ്റ വർഷത്തേക്കായ വീടിൻറെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്

പറയുന്നത് അപ്പം എന്നു വെച്ചാൽ ഞാൻ ലീവ് വേണം ബാങ്കിൽ ലീവുള്ള ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോകും അപ്പം എന്തായാലും ഞാനത് നോക്കാം നോക്കിയിട്ടപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാനാണ് വാടകക്കാണെങ്കിൽ സെക്യൂരിറ്റി പൈസ എത്രയായിരിക്കും പത്ത് രൂപ പിന്നെ മാസം അയ്യായിരം രൂപ അല്ലേ അത് അയ്യായിരത്തിന് ഇച്ചിരി കുറയത്തില്ലേ

രണ്ടാം നിലയുടെ മുകളിലായിട്ട് എനിക്ക് എന്നാ അല്ലാതെ വേറെയൊന്നും കിടപ്പില്ലേ എന്നായെന്നു വെച്ചാൽ എനിക്ക് സിംഗിളായിട്ട് വേണം വെച്ചാൽ ഒരു മുറിയായിട്ട് മതി എന്നാ വെച്ചാൽ എന്നാ വെച്ചാൽ ആ ഞാൻ ഫുഡ്ഡൊന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക് ബാങ്കിൽ നിന്നു വന്നു കഴിഞ്ഞിട്ട് ഒന്നു കിടക്കാനും അങ്ങനെയുള്ള സൗകര്യത്തിനും ഉള്ളതാണ് ആ എന്തായാലും ഞാനെന്നാൽ നോക്കിയിട്ട് ഞാൻ വിളിക്കാമേ രണ്ടാം നിലയോട് എനിക്ക് വലിയ താല്പര്യമില്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വിളിക്കാം ഓക്കെ ആ ഓക്കെ താങ്ക് യൂ